ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ലോ പിച്ചാണെങ്കിൽ അങ്ങനത്തെ പാട്ടുകളെ എടുക്കത്തുള്ളു നല്ല മറ്റു കാണികൾക്ക് നല്ല ഇമ്പമുള്ള പാട്ടായിരിക്കണം അതിൻ്റെ താളവും രാഗവും പല്ലവി എല്ലാം നന്നായിരിക്കുക അപ്പം ഞാനതുകൊണ്ട് പാടിപ്പാടി ഞാനിങ്ങനെ നോക്കും ആ ട്യൂണിൽ അല്ലെങ്കിൽ ആ താളം തെറ്റാതെ ഞാൻ പാടാൻ നോക്കും എന്നാലെ എനിക്കത് മറ്റുള്ളവരുടെ മുന്നിൽ പാടാൻ പറ്റത്തുള്ളൂ അത് എൻ്റെ സ്വരം വെളിയിൽ നിന്നുവരേയും പലപ്രാവശ്യവും ഞാനത് പാടിപ്പാടി ഒപ്പം അവരുടെ ഒപ്പം റെക്കോഡിൻ്റെ ഒപ്പം തന്നെ ഞാൻ തന്നെ പാടിപ്പാടി പലപ്രാവശ്യം പാടും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പാടും പിന്നെ എനിക്ക് ആ പാട്ട് പാടണം ഞാൻ ലയിച്ച് പാടുള്ളു അപ്പം എൻ്റെ പാട്ട് കേൾക്കുമ്പം മറ്റുള്ളവർക്കും അത് അതിനകത്ത് ലയിച്ച് കേൾക്കാൻ പറ്റും അവർ അത് എഞ്ചോയ് ചെയ്യാറുണ്ട് അതിനെ എന്നും പറയാറുണ്ട് നല്ല പാട്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് പാടാൻ പറ്റാവുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ പാടത്തുള്ളു നല്ല രാഗം താളം പല്ലവി ശ്രുതി ഇതെല്ലാം ഒരുമിച്ച് പോകണ പാട്ട് പഠിക്കാൻ ലോ പിച്ചായിരിക്കും എനിക്ക് ഇഷ്ടം